ഹലോ ഇത് ഗവമെന്റ് ഓഫീസല്ലേ ഞാൻ എനിക്ക് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ലാംഗ്വേജൊന്നും അറിയില്ലേനു അപ്പോൾ ദുബായിക്കായിരുന്നു പോകേണ്ടത് അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ദുബായിൽ അറബി സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ആ എനിക്ക് അറബീനതിനെ അമേരിക്കേയിലേക്കും കൂടെയൊന്ന് പോകണമായിരുന്നു പത്ത് ദിവസത്തെ ആ ആ

ഇല്ലില്ല കുഴപ്പമില്ല ആ ഞാൻ മാത്രം ബിസിനസ്സിന്റെ ഒരു കാര്യമായിട്ട് പോകുന്നതാണ് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ആ എവിടെയിനു കമ്പനി ആ ആ ഓക്കേ ഓക്കെ ഓക്കെ